പണ്ടൊരിക്കൽ ഞാൻ തമിഴ്നാട്ടിലേക്ക് ഒര് യാത്ര പോയപ്പോഴാണ് ഞാനീ കാളവണ്ടിയോട്ടം കാണുന്നത് ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര കൗതുകത്തോടെയാണ് ഞാനത് നോക്കി കണ്ടത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അതിൻറ്റെ ഭയങ്കര സന്തോഷം എനിക്കുണ്ടായിരുന്നു വളരെ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നവരും ഭയങ്കര ആഘോഷമായിരുന്നു അവിടെ ഭയങ്കര സന്തോഷവും ചിരിയും ആര് ജയിക്കും എന്ന ആ ഒരു ഇതൊക്കെക്കൂടി ഭയങ്കര ഇതായിരുന്നു നമുക്ക് പക്ഷെ കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാകവായിരുന്നുണ്ട് ഒരു മിണ്ടാപ്രാണിയെ വെച്ചാണ് അവര് ഇതൊക്കെ ചെയ്യുന്നത് അതിന് അതിൻറ്റേതായിട്ടുള്ള ആവിശ്യങ്ങളൊന്നും നടത്താതെ സ്വന്തം സ്വാർത്ഥതയ്ക്കു വേണ്ടി പല മനുഷ്യരും ഓരോ മൃഗങ്ങളേയും ബാലിയാടാക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ആദ്യം കണ്ടത് ആ സന്തോഷവും ആ ആഹ്ളാദവും കൗതുകാവുമൊക്കെ പിന്നീടൊര് സഹതാപമായിട്ടാണ് മാറിയത് അതേപോലെ തന്നെ ഞാനൊരിക്കൽ വേളാങ്കണ്ണിക്ക് പോയി പോയപ്പോൾ ഒരു കടയില് ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പഴാണ് കോഴിപ്പോരിന് വേണ്ടിയിട്ട് രണ്ട് കോഴികളെ കൂട്ടി കെട്ടിയിട്ടിരിക്കുന്നു അപ്പം അവരുടെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഇല്ലാണ്ടായിട്ടിരിക്കുന്നത് ഒരു കോഴി എന്നുപറയുന്നത് എപ്പോഴും അവിടെ ഇവിടെ ഒക്കെ ഓടി നടക്കുന്ന ഒരു ജീവിയാണ് പക്ഷെ അതിനെ കെട്ടിയിട്ട് അതിന് ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ അതിനൊര് മത്സരത്തിനുള്ള വസ്തുവാക്കി മാറ്റി വയ്ക്കുവാണ് അവിടെ